പ്രായമുള്ളവര് പ്രധാനമായും കളിക്കുന്നത് അന്താക്ഷരി അന്താക്ഷരി പോലെയുള്ള ചെറിയ ചെറിയ ഗെയിംസ് ആണ് പിന്നെ ദംഷറാഡ്സ് ഈ കളികളെന്ന് പറയുന്നത് നമ്മള് പ്രധാനമായും ഒരു സിനിമ പേര് അല്ലെങ്കില് ഒരു ലെറ്ററ് കൊണ്ട് ഒരാൾ ഒരു സിനിമാപ്പാട്ട് തുടങ്ങുന്നു ആ പാട്ടിന് അവസാനിക്കുന്ന വരിയിലെ അക്ഷരം എതിര് ടീമിലെ ആള്ക്ക് കൊടുക്കുന്നു ആ അക്കം ആ ലെറ്ററ് വച്ചിട്ട് എതിര് ടീമിലെ ആള്ക്കാർ പാട്ട് പാടുന്നു അതാണ് നമ്മൾ അന്താക്ഷരി എന്ന് കൊണ്ട് ഉദേശിക്കുന്നത് അത് മലയാള സിനിമ അതിലെ ഗാനങ്ങളായിരുന്നു ആ ഗാനങ്ങളോ ചിലപ്പം നമ്മൾ സിനിമ പേര് വച്ച് കളിക്കാറുണ്ട് ഇതാവുമ്പോള് ശരീരത്തിന് ഒരുപാട് ആയാസം കൊടുക്കാത്ത രീതിയില് തന്നെ നമുക്ക് ചെയ്യാനാവുന്ന കളികളാണ് പൊതുവേ അതുകൊണ്ടു തന്നെ ഇവ നമ്മള് പ്രായമായവര്ക്ക് പ്രധാനമായും കളിപ്പിക്കുന്ന കളികളാണ് അന്താക്ഷരി കളിക്കുമ്പോള് നമ്മള് പ്രധാനമായും ഒരു ലെറ്ററ് പറയാന് സാധിച്ചില്ല എങ്കില് അവരെ നമ്മൾ ഇതാവും നമ്മള് പ്രധാനം മങ്കി ഡോങ്കി എന്നൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത് അപ്പം എല്ലാ ലെറ്ററും ഒരെണ്ണം മിസ്സായിക്കഴിഞ്ഞാൽ ഒരു ലെറ്ററാവും അങ്ങനെ ആര് ആദ്യം ജയിക്കുന്നു എന്നുള്ള ഒരു ഇതിലേക്കാണ് അന്ത്യാക്ഷരി കളിക്കുന്നത് അതുപോലെ തന്നെ ദംഷാഡ്സുണ്ട് അതായത് ഒരു സിനിമ പേര് നമ്മൾ രണ്ട് ടീമായിട്ട് തിരിക്കുന്നു അപ്പം അതിൽ ഒരു ടീമ് മറ്റേ ടീമിന്റെ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അയാള്ക്ക് ഒരു സിനിമ പേര് അയാളുടെ ചെവിയില് പറയുന്നു അപ്പോൾ അയാൽ ആ അയാളോട് പറഞ്ഞ സിനിമ പേര് മറ്റുള്ളവരെ അറിയിക്കണം അത് സംസാരത്തിലൂടെ അല്ലാതെ ആക്ഷന്സ് ഉപയോഗിച്ചു കൊണ്ട് മാത്രമായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അയാള്ടെ ചുണ്ടോ സ്വരമോ ഉപയോഗിക്കാതെ അയാള്ടെ ആക്ഷന്സ് അഥവാ ചലനങ്ങളിലൂടെ ആ ഏത് സിനിമയാണ് എതിര് ടീമ് തങ്ങളോട് പറഞ്ഞത് എന്ന് സ്വന്തം ടീമിലെ കളിക്കാരെ കൊണ്ട് പറയിക്കുക എന്നുള്ളതാണ് ഈ ഗെയിം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രായമായവര്ക്ക് നമ്മൾ കാര്ഡ് ഗെയിംസ് കൊടുക്കാറുണ്ട് പൊതുവെ ആ കാര്ഡ് ഗെയിംസ് നമ്മൾക്ക് അറിയാലോ അതുപോലെയുള്ള ചെറിയ ചെറിയ ആയാസരഹിതമായ കളികളാണ് അവരെ മാനസികമായും ഉണര്വിനും കൂടുതല് സന്തോഷത്തിനും ഒക്കെ വേണ്ടി നമ്മൾ അവരെ കൊടുക്കാറുള്ളത്